എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്താന്നുവെച്ചാൽ ലാപ്ടോപ്പ് ആണ് അതിന് ഒരുപാട് പോസറ്റീവ് ഗുണങ്ങളുണ്ട് അതുപോലെത്തന്നെ ഒരുപാട് നെഗറ്റീവ് ഗുണങ്ങളും വരുന്നുണ്ട് പോസിറ്റീവ് ഗുളങ്ങള് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്കതുപയോഗിച്ച് നമ്മുടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാന് അതായത് നമ്മൾ ഇപ്പോൾ വെഡിങ്ങിൻ്റെ ആണെങ്കിലും എന്തെങ്കിലും ഫങ്ക്ഷനൊക്കെയുണ്ടെങ്കിൽ അത് ഫോട്ടോസൊക്കെ സേവ് ചെയ്ത് വെക്കാനും സൂക്ഷിച്ച് വെക്കാനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൂക്ഷിച്ച് വെച്ച് എടുത്ത് നോക്കാനൊക്കെ നല്ലൊരു ഉപകാരൊള്ളൊരു സംഭവമാണ് അതുപോലെത്തന്നെ പാട്ട് കേൾക്കാന് അതുപോലെത്തന്നെ ഗെയിമ് കളിക്കാന് അതുപോലെത്തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ എടുത്തുവെക്കാനൊക്കെ ഏറ്റവും ഉപകാരമുള്ളൊരു സാധനാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവ് ഗുണങ്ങളോണ്ട് കാരണോന്നുവെച്ചിട്ടുണ്ടെങ്കി നമ്മൾ ഉപയോഗിക്കുന്നതിന് അനുസരിച്ച് പിന്നെ ചില ലാപ്ടോപ്പുകളൊക്കെ വേഗം തന്നെ കേടായിപ്പോവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പിന്നെ അതുപോലെത്തന്നെ ചിലപ്പോൾ ഹാങ്ങായി പോവും പെട്ടന്ന് ഹാങ്ങായി പോവുന്ന പ്രൊഡക്റ്റുകൾ ആയിരിക്കും അതുപോലെ പിന്നെ ഉള്ളത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ വല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെയായിരിക്കും ലാപ്ടോപ്പുകൾ കൊണ്ട് ഉണ്ടാവുന്നത് പിന്നെ അങ്ങനെയുള്ള പോസിറ്റീവും നെഗറ്റീവും ആയ ഗുണങ്ങളാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റിനുള്ളത്